ഹലോ സാർ മേ ഐ കം ഇൻ ആ ഹലോ സാർ ആ എൻ്റെ പേര് രേഷ്മ എന്നാണ് ഞാനിപ്പോൾ എൻ്റെ മക്കളെ എൻ്റെ മക്കളെ നമുക്കിതിൽ സ്കൂളിലൊന്ന് അഡ്മിഷൻ്റെ കാര്യയത്തിനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ആണ് ഒരു മകനെ രണ്ടാം ക്ലാസിലേക്കും ഒരു കുട്ടീനെ എൽ കെ ജിയിലേക്ക് ആണ് നമ്മൾ നോക്കുന്നത് ആ അതെയതെ ഉണ്ടായിരുന്നു ഇവിടെ വേരൊരു അടുത്തുള്ളൊരു സ്കൂളിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾക്ക് രണ്ടു പേരെയും ഒരുമിച്ച് പഠിപ്പൊക്കെ ഇച്ചിരി കുറവാണെന്ന് തോന്നി എനിക്ക് അവിടെ പിന്നെ നമ്മൾ എല്ലാവരേയും രണ്ടു പേരയും ഒരുമിച്ച് ഒരു സ്കൂളിൽ ചേർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്

ഓക്കേ സാർ ഓക്കേ സർ നമുക്ക് ഇവിടുത്തെ എന്തായി എങ്ങനെ കാര്യങ്ങളൊക്കെ ഫീസും മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് അതെയല്ലേ ഓ ഓ ഓ അതാണോ ഒക്കെ ഒക്കെ അത് മന്ത്ലി ആയിട്ട് അടക്കുക അല്ലെങ്കിൽ ക്വാർട്ടെർലി അല്ലെങ്കിൽ മന്ത്ലി തന്നെ ആയിട്ട് പേയ്മെൻ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ അതെ അല്ലെ ഒക്കെ ഒക്കെ മറ്റേ ഡൊണേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ആ ആ

ഓ ആ ആ

അതെ അതെ ഒക്കെ ഒക്കെ ഏയ് അല്ല നിർത്തുകയൊന്നുമില്ല കാരണം അല്ല ഞങ്ങൾ ഒന്നു ചോദിച്ചു എന്നു മാത്രം കേട്ടോ അതെ അതെ പിന്നെ എങ്ങനെയാണ് നമുക്ക് ബസ്സ് സ്കൂൾ ബസ്സൊക്കെ ഉണ്ടല്ലോ അല്ലെ

അതെ ഒരു അഞ്ച് കിലോമീറ്ററ് അഞ്ച് കിലോമീറ്ററൊക്കെയേ ഉളളൂ അതെ അല്ലെ ഓക്കേ ഓക്കേ അവർക്ക് എങ്ങനെയാണ് നമ്മൾ അത് വെറെ ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എത്ര മണിക്കാണ് വരിക ബസ്സ് കാര്യങ്ങൾക്കൊക്കെ ആ അതെ അതെ അതെ പിന്നെ എന്തെങ്കിലും ഡോക്യുമെൻ്റ്സ് ഒക്കെ എന്താ വേണ്ടത് സാറെ അഡ്മിഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ആ ആ അത് കയ്യിൽ ഉണ്ട് പിന്നെ ആ ആ ഉവ്വ് ഉവ്വ് അത് ഞാൻ കയ്യിൽ വച്ചിട്ടുണ്ട് ആ ഉണ്ട് ഉണ്ട് വച്ചിട്ടുണ്ട് അതെ അല്ലെ ആ ഈ യൂണിഫോമൊക്കെ എപ്പോഴാണ് കിട്ടുക യൂണിഫോമൊക്കെ ഇപ്പോൾ ഓഫീസിൽ പോയാൽ കിട്ടുമോ